കുതിരസവാരിക്ക് പോകുമ്പോൾ നമ്മൾ ഹെൽമറ്റ് ഹെൽമറ്റ് വെക്കണം കാരണം വളരെ സ്പീഡിലൊക്കെ ഓടുന്ന സമയത്ത് നമ്മൾ തല തെറിച്ചു വീഴുന്ന സമയത്തൊക്കെ സമയത്ത് നമുക്ക് തെറിച്ചു വീഴുന്ന സമയത്ത് നമുക്ക് താഴെ വീണു കഴിഞ്ഞാൽ തലയ്ക്ക് എന്തെങ്കിലും പൊട്ടാതിരിക്കാനൊക്കെ തലയ്ക്ക് പൊട്ടു വരാതിരിക്കാൻ ഹെൽമെറ്റ് യൂസ് ചെയ്യണം പിന്നെ ഗ്ലൗസ് എപ്പോഴും ഇങ്ങനെ പിടിച്ച് ഓടുന്ന സമയത്ത് പിടിച്ചു

പിടിച്ച് ഓടുന്ന സമയത്ത് പിടിച്ച് ഓടുന്ന സമയത്ത് കൈക്ക് ഒന്നും പറ്റാതിരിക്കാൻ ഗ്ലൗസ് കയ്യിൽ ഗ്ലൗസ് യൂസ് ചെയ്യണം പിന്നെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് നമ്മൾ ഒരുപാടുദൂരം ഒക്കെ പോകുമ്പോൾ ചെറിയ മുറിവുകളോ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്തായാലും നമ്മൾ കയ്യിൽ കരുതണം പെട്ടെന്നെന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ് മാസ്ക് പിന്നെ നമ്മളിങ്ങനെ പൊടികൾ നമ്മൾ ദൂരേക്കൊക്കെ പോകുമ്പോൾ പൊടികളൊക്കെ അടിക്കാതിരിക്കാനൊരു മാസ്ക്കും കൂടെ വെച്ചാൽ ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം